ആ ഞാൻ എൻ്റെ എഴുത്തിന് ആശയങ്ങൾ അല്ലെങ്കിൽ എഴുത്തിനുള്ള ആശയങ്ങളെ കണ്ടെത്താറുള്ളത് പല രീതിയിൽ ഞാൻ കണ്ടെത്താറുണ്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ആ ഒരു എൻ്റെ ചിന്തകളും മറ്റും കാര്യങ്ങളും പോലെ ആയിരിക്കും എൻ്റെ എഴുത്തിലുള്ള ആശയങ്ങള് വരിക അപ്പോൾ അതിൻ്റെ വിദ്യകളും മറ്റും തന്ത്രങ്ങളും ഒന്നും തന്നെയില്ല അല്ലെങ്കിൽ ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്ന ആശയം എന്ന് പറയണത് അന്നത്തെ ആ ഒരു ദിവസത്തിൽ എനിക്ക് സംഭവിച്ച മറ്റു കാര്യങ്ങളും അതുപോലെത്തന്നെ കുറച്ചും കൂടി ഏകാഗ്രമായിരിക്കുന്ന സമയത്താണ് കൂടുതലും ആശയങ്ങളും മറ്റു ചിന്തകളും എല്ലാം വരാറുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ എഴുതാൻ പ്രേരിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങൾ പ്രകൃതിയിലെ ഓരോ കാഴ്ചകൾ കാണുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഴുതാനുള്ള ഒരു താൽപര്യം തോന്നുകയാണ് പല ആശയങ്ങളും പല പുതി പല പുതിയ ചിന്തകളും വരുകയാണ് സമൂഹം സമൂഹത്തിലെ മറ്റു കാര്യങ്ങളും നമ്മൾ ആ അന്നത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ സംഭവങ്ങൾ എക്കെ വച്ച് നമുക്ക് ആശയങ്ങൾ ലഭിക്കാറുണ്ട് അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിക്കോട്ടെ സംസ്കാരങ്ങൾ അങ്ങനെ പല ആശയങ്ങൾ അല്ലെങ്കിൽ എഴുത്തിനുള്ള ആശയങ്ങൾ തന്നെ ഒരുപാട് ഉറവിടങ്ങൾ ഇണ്ട്